അതേ ഇതാരാണ്

ആ വീടെല്ലാം ഇഷ്ടം പോലെയുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനത്തെ വീടാണ് നിങ്ങളുദ്ദേശിക്കുന്നത് അതേ അല്ലെ നിങ്ങൾ എത്രയാളാണ് അന്നേരം ഫുൾ ഫാമിലിയാണ്

ആ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുദ്ദേശിക്കുന്നത് വാടകയെല്ലാം അതെ അല്ലെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ടൗണിനടുത്ത് വേണോ അല്ലേല് ഇത്തിരി റോഡ് സൈഡ് അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ അതെ അല്ലെ ആ അന്നേരവും ആ വീടിന് എങ്ങനെ ഇരുവ പിന്നെ അഡ്വാൻസ് കൊടുക്കണോ ഏ അതെങ്ങനെയാണ് നിങ്ങൾ ആ അത് നമുക്ക് അവരോട് പ ചോദിച്ച് സംസാരിക്കാം ആ പിന്നെ നിങ്ങൾക്ക് ഫ്ലാറ്റ് താത്പര്യമുണ്ടോ ഇല്ല ഫ്ലാറ്റ് റോഡ് സൈഡില് കുറച്ച് ഫ്ലാറ്റുകള് ഒഴിവുണ്ട് ഏ അപ്പോൾ നമുക്ക് അതിന്റെ അകത്ത് ചെറിയ നിങ്ങൾ ഈ പറയുന്ന ഈ പതിനഞ്ചായിരം എന്നുള്ളത് ഇരുപത് വരെയേലും ചിലപ്പോൾ പോകുന്നതിൽ പ്രശ്നം ഇല്ലല്ലോ ആ അങ്ങനെ ഫ്ലാറ്റുകള് ഉണ്ട് അപ്പോൾ അത് നോക്കിയാലോ എന്നാല് നമുക്ക് ആ അപ്പം ആറ് മാസത്തേക്കാകുമ്പോൾ ഫ്ലാറ്റ് തന്നെയാണ് നല്ലത് ഏ ആ അപ്പം നിങ്ങളുടെ ആ അത് കുഴപ്പമില്ല അതെല്ലാം നമ്മുടെ കസ്റ്റഡി യിൽ തന്നെയുള്ളതാണ് ഏ അപ്പോൾ നിങ്ങളെപ്പഴാണ് നാട്ടിലോട്ട് വരിക ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏ ഈ ഫ്ലാറ്റ് വരുന്നത് ഒരു പുതിയ തേരൂ എന്ന് പറഞ്ഞ സ്ഥലമാണ് അറിയാമോ അപ്പോൾ അങ്ങനെ പുതിയതേരു ആണ് വരുന്നത് എന്നാൽ നിങ്ങള് നാളെ എത്തി കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി ആ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും ആ ആ അത് മൂന്ന് നാലെണ്ണം ഉണ്ട് നമുക്ക് ഒരെണം പോയി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാന്ന് വെച്ചാല് നമുക്ക് ഉറപ്പിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാൽ